ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ വെട്ടപ്പോ വയോജനങ്ങൾക്ക് വയോജനം പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇപ്പോൾ വൃദ്ധജനങ്ങളെ പരിപാലിക്കാനും അതുപോലെ കിടപ്പ് രോഗികളെയൊക്കെ വീട്ടിൽ വന്ന് അവരുടെ ബി പി ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യുന്നതിനും ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ ശ്രുതി തരംഗം അപ്പം നമ്മുടെ കേൾവി ശക്തി ഇല്ലാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ സർക്കാരിൻ്റെ ഇതിൽ ശ്രുതി തരംഗം പറഞ്ഞ പദ്ധതിയിലൂടെ നമുക്ക് ഒരു മഷീൻ കേൾവിക്ക് ഉള്ളൊരു മഷീൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ സാന്ത്വനം സാന്ത്വനം പരിപാലനം ഉണ്ട് അതുമൂലം ഒരുപാട് പേർക്ക് ഒരു സാന്ത്വനം കിട്ടുന്നുണ്ട് പിന്നെ കാരുണ്യം പദ്ധതി ഇപ്പോൾ കാരുണ്യം പദ്ധതിയിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡയാലിസിസിനും അല്ലെങ്കിൽ ഹൃദ്രോ ഹൃദ്രോഗങ്ങൾക്കൊക്കെയായിട്ട് അവർക്ക് ഒരുപാട് ചികിത്സ സഹായം കാരുണ്യം പദ്ധതി വഴി നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ കാരുണ്യം പദ്ധതിയിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരുണ്യ ലോട്ടറി എന്നൊരു ഓപ്ഷൻ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൂടെ കിട്ടുന്ന പൈസ ഈ കാരുണ്യം പദ്ധതിക്ക് വേണ്ടി കൊടുക്കുന്നു